ഹലോ ആരാണ് വിളിക്കുന്നത് ആരാണ് വിളിക്കുന്നത് എന്നാ പറ്റി അങ്ങനെ വരാൻ അങ്ങനെ വരാൻ വഴിയൊന്നുമില്ലല്ലോ അത് നിങ്ങൾ ചേർത്ത മസാലേടെ വല്ലോം ഫ്ലേവറ് വല്ലൊക്കെ ആയിരിക്കും അത് ബീഫിനകത്ത് അങ്ങനെ കളറൊന്നും വരാൻ വഴിയില്ല

ഓ ഉവ്വ് ആ ഞങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച് ഇതിനു മുന്നേ കംപ്ലൈൻറ്റൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല ഇങ്ങനൊരു കംപ്ലൈൻറ്റ് ഞാനാദ്യമായിട്ട് കേൾക്കാണ് അപ്പോൾ നിങ്ങൾ വേറെ നിങ്ങൾ ഇതിൻറ്റെ കൂട്ടത്തിൽ വേറെന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിൻറ്റെ ആയിരിക്കും കൊച്ചിന് അല്ലാതെ ഇതിൻറ്റേതായിട്ടുള്ള ഇതൊന്നും വരത്തില്ല ബീഫ് നിങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്തോ നിങ്ങളൊരു കാര്യം ചെയ്തോ നിങ്ങൾക്ക് നിർബന്ധം ആണെങ്കിൽ നിങ്ങളാ ഇവിടുന്ന് കൊണ്ടുപോയ മീറ്റ് ഇല്ലെ കറി വെച്ചത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങളതൊന്ന് ടെസ്റ്റ് ചെയ്യിക്ക് എന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് ഞങ്ങളെ കുറിച്ച് അപവാദം പറയല്ലേ ഞങ്ങളുടെ ബിസിനസിനെ ബാധിക്കുന്നതാണ് അത് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഇതിപ്പം നിങ്ങളുടെ നല്ല സാധനമാണല്ലോ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾ അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് രീതികൊണ്ടായിരിക്കാം അല്ലേൽ നിങ്ങളത് മേടിച്ചിട്ട് അവിടെ കുറെ നേരം കൊണ്ടെവിടെലും ഫ്രീസറിലോ ഒന്നും വെക്കാതെ ഉപയോഗിച്ചിട്ട് അത് ചീഞ്ഞിട്ട് വല്ലോം സംഭവിച്ചതായിരിക്കാം അത് ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമല്ല നിങ്ങൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യ് അതിനകത്ത് വേറെന്തെലും മായം അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളാരോപണം ഉന്നയിക്ക് അല്ലാതെ വെറുതെ എല്ലാവരോടും ഞങ്ങളുടെ മീറ്റ് മേടിച്ചോണ്ട് പോയിട്ട് കുഴപ്പം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസിനെ ബാധിക്കുന്നതാണ് ഞങ്ങൾക്കതിനെതിരെ നിയമനടപടി സ്വീകരിക്കേണ്ടി വരും നമ്മൾ ഒന്ന് കുറെ കാലങ്ങളായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നതാണ് നിങ്ങളും നേരത്തെ നിങ്ങളും നേരത്തെ ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുള്ളതല്ലേ ഇത് എന്താന്ന് നിങ്ങൾ ചെയ്യ് കേട്ടോ നിങ്ങളെന്താന്ന് അതിൻ്റെ നിങ്ങൾ തന്നെ അതിൻ്റെ നിയമനടപടി നോക്ക് ഞാനതിൻറ്റെ ബാക്കി നോക്കിക്കോളാം കേട്ടോ എനിക്കിപ്പം കടയിൽ കടയിൽ നല്ല തിരക്കുള്ള സമയമാണ് കൂടുതൽ നേരം സംസാരിക്കാൻ പറ്റില്ല അല്ല നിങ്ങളിത് നിങ്ങളെന്നാ അതിൻ്റെ നിയമനടപടികൾ സ്വീകരിച്ചോ ഞാൻ അതിൻ്റെ ബാക്കി നോക്കിക്കോളാം കേട്ടോ പരിഹാരം കണ്ടാൽ നിങ്ങൾ നിങ്ങൾടേതായ രീതിയിൽ പരിഹാരങ്ങൾ കാണാനുള്ള കാര്യങ്ങൾ നോക്കിക്കോളാം ഞാനതിൻറ്റെ ബാക്കി നോക്കിക്കോളാം കേട്ടോ രൂപ ഒന്നും തരാൻ പറ്റത്തില്ല എനിക്ക് രൂപ ഒന്നും തരാൻ പറ്റത്തില്ല നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തോ ബാക്കി പോലീസുകാർ വരട്ടെ എന്നിട്ട് ഞാൻ അവരോട് സംസാരിച്ചിട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ ആ അതൊന്നും ഇല്ല ഞാൻ തരില്ല ഞാൻ തരില്ല ഞാൻ തരില്ല പൈസ അപ്പോൾ നിങ്ങക്കെന്നോടെന്തോ വ്യക്തിവൈരാഗ്യം ഉള്ളോണ്ട് ചെയ്യുന്നതല്ലേ അല്ലാതെ നിങ്ങളുടെ കൊച്ചിനൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല നിങ്ങളെൻറ്റെ കച്ചവടം പൂട്ടിക്കാൻ വേണ്ടി ഉള്ള കളിയാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഞാൻ കട്ട് ചെയ്യുക ആ എന്നാൽ പിന്നെ നിങ്ങൾ കുറച്ച് മാന്യമായിട്ടൊക്കെ സംസാരിക്ക് അപ്പോൾ ഏതായാലും ഒന്ന് ചേട്ടൻ കടയിലേക്ക് വാ കേട്ടോ അല്ലല്ല വാ കടയിലേക്ക് വാ നമുക്ക് നമുക്ക് നേരിട്ട് സംസാരിക്കാം ഫോണിക്കൂടെ സംസാരിക്കുന്നതല്ലല്ലോ നമുക്ക് നേരിട്ട് സംസാരിക്കാം അത് നമുക്കാലോചിക്കാം വാ വാ വാ ചേട്ടൻ വാ കടയിലോ കടയിലോട്ട് വാ കടയിലോട്ട് വാ നമുക്കത് ആളെ കൂട്ടാനൊന്നും അല്ല നമ്മൾ രണ്ടും മാത്രം സംസാരിച്ചാൽ പോരെ അൻപതിനായിരം അൻപതിനായിരം രൂപ നിങ്ങൾക്ക് അൻപതിനായിരം രൂപ നിങ്ങൾക്ക് തരാൻ പറ്റാഞ്ഞിട്ടൊന്നും അല്ല ഞാൻ അതോണ്ടല്ല പറയുന്നത് നിങ്ങൾ വാ നമ്മൾ നേരിട്ട് സംസാരിക്കാം അല്ലേ ഞാനങ്ങോട്ട് വരാം ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം ഓക്കെ ഓക്കെ ഓക്കെ